എൻ്റെ ജോലിയുടെ ഭാവി അല്ലെങ്കിൽ കരിയർ കരിയറിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണേയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ട് അതായത് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷനൊക്കെയാണ് ഈ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പക്ഷെ എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് അതായത് നല്ല രീതിയിൽ ജീവിക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ജോലിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ശാശ്വതമല്ല ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ഫേമിൻ്റെ ഓണർ നമ്മളോടിപ്പം പെട്ടെന്ന് അവരെല്ലാം കമ്പനിയൊക്കെ പൂട്ടി പൂവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇറങ്ങി വരണം കാരണം നമുക്ക് വേറെ ചോയ്സസ്സില്ല പക്ഷേ നമുക്ക് ഗവൺമെൻറ് ജോലിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങനെയല്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ജോലി ചെയുമ്പോൾ തന്നെ നമുക്ക് പി എഫ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് സാ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെ നമുക്കെന്തെങ്കിലും അതായത് പ്രെഗ്നൻറ് അങ്ങനെ എന്തെങ്കിലും പിന്നെ അല്ലാണ്ട് ഉള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെ വരുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ലീവിനൊന്നും നമ്മുടെ പൈസ പിടിക്കില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അൻപത്താറ് വയസ്സിൽ റിട്ടയർമെന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും നമുക്ക് നമുക്ക് ശമ്പളം കിട്ടുന്നതിൻ്റെ നമുക്ക് പകുതി പൈസ കിട്ടും അങ്ങനെ ഗവൺമെൻറ് ജോലിയെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും നമുക്ക് ഉപകാരമാണ് അപ്പോൾ മെയ്നായിട്ട് എനിക്ക് ഒരു പിന്നെ ഗവൺമെൻറ് ജോലി നേടണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം